ആ ഞാനേ പിന്നെ എനിക്ക് വയനാട്ടിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട് ഞാന് കൊച്ചിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് ടൂ വീലർ റെൻ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അല്ല ഫാമിലീൻ്റെ കൂടെയാണ് വരുന്നത് അല്ല ഫ്രണ്ട്സ് ആണുള്ളത് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വരുന്നത് അപ്പോൾ വയനാട് ചുറ്റിക്കറങ്ങി കാണാൻ ഒരു മൂന്നു ദിവസത്തേക്ക് വൺ ഡേ റെന്റ് എത്ര രൂപയാകും എങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നൊക്കെ അറിയാനായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എണ്ണ ആ ദിവസത്തെ മുഴുവൻ നിങ്ങൾ അടിച്ചു തരുമോ അതോ അടുത്ത പമ്പ് വരെയാണോ ആ ഓക്കെ ഓക്കെ അതെ അപ്പം നമ്മൾ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരണോ അത് മാത്രം മതി ഒറിജിനൽ വേണോ അതോ നമ്മൾ ഓക്കെ ഓക്കെ അപ്പം രണ്ടു വണ്ടി വേണ്ടിവരും ഞങ്ങൾക്ക് ഹെൽമറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവുമോ ഓക്കെ ഒരു സ്കൂട്ടിയും ഒരു ബൈക്കും വേണ്ടിവരും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് സ്കൂട്ടി ആയിരിക്കും നമുക്കവിടെ വന്നിട്ട് ഡിസൈഡ് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ രണ്ട് ഹെൽമെറ്റ് വീതം വെച്ച് നിങ്ങൾ തരുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ക്യാഷ് ഒറ്റയടിക്ക് അടയ്ക്കണോ അതോ നമ്മൾ ഫസ്റ്റ് കമ്പ്ലീറ്റ് പേ ചെയ്യണം ഓക്കെ ഓക്കെ ഓക്കെ അപ്പം

എന്നാൽ അപ്പോൾ ഞങ്ങൾ എവിടെ വന്നിട്ടാണ് കളക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കൊണ്ട് തരുമോ അതോ ഞങ്ങൾ ഷോറൂമിൽ വരണോ ഷോറൂമിൽ വരേണ്ടിവരുമോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ആണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വരുമ്പോൾ ഞങ്ങൾ നേരത്തെ റൂട്ടും കാര്യങ്ങളും ഒക്കെയൊന്ന് പറയുവാണെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് അടുത്താണെങ്കിൽ അങ്ങനെ വരാം ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങളവിടെ വരാം എന്നിട്ട് ആ ബാക്കി ഓക്കെ ഞാനിവിടുന്ന് വ കയറുമ്പോൾ വിളിക്കാം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഡി പിന്നെ അയച്ച് തരുവാണെങ്കിൽ ഞങ്ങളങ്ങോട്ട് വന്നേക്കാം ഉം ആ ഓക്കെ അപ്പം അവിടെ വന്നിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാമല്ലോ ഓക്കെ താങ്ക് യൂ